ഓക്കേ താങ്ക് യു അമൽരാജ് ഞാൻ വിളിക്കുന്നത് കോഴിക്കോടു നിന്നാണ് ഞങ്ങൾ ഒരു ഫാമിലിയായിട്ട് ഫാമിലി പാക്കായിട്ട് വായനാട്ടിലേക്കൊന്ന് ടൂറിനു വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് അവിടുത്തെ കാലാവസ്ഥ ആഹ് എത്ര പേരാ അതെ ഈ മഴ പെയ്യുന്നതോടനുബന്ധിച്ച് ഏതെങ്കിലും സ്ഥലങ്ങളിൽ നമുക്ക് കയറാൻ പറ്റാതെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഓക്കേ എന്താണ് അവിടെ ഒരു പാക്കേജ് റേറ്റ് വരുന്നത് ഞങ്ങളൊരു പതിനഞ്ച് പേരുണ്ട് വണ്ടി അപ്പോൾ ആൾറെഡി നമുക്കുണ്ട് നിങ്ങൾ വണ്ടി തരുമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെനിന്ന് നിങ്ങളുടെ വണ്ടി എടുക്കാം ഓക്കേ ആഹ് ആഹ് ആഹ് എല്ലാം വേണം ഫുൾ പാക്കേജായിട്ട് വേണം ഞങ്ങൾക്ക്

ഓക്കെ ആഹ് ആഹ് ആഹ് ഓക്കേ ഓക്കെ ആഹ് പിന്നെ വേറേ സ്ഥലം എതാണുള്ളത് നമുക്ക് പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ

ആഹ് ഓക്കേ ഒക്കെ ആഹ് ഓക്കേ ആഹ് ഓക്കേ ഞങ്ങൾ നാളെ വരാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കേ വിളിച്ചോളാം താങ്ക് യു അമൽ